ട്രക്കിങ് എപ്പോഴും മനോഹരമായ അനുഭവങ്ങൾ പകർന്നുതരുന്ന ഒന്നാണ് ഹൈ ട്രക്കുകളോടൊപ്പം എങ്ങനെ നിങ്ങളുടെ വ്യക്തി ജവിതം തൊഴിൽ ജീവിതം ഒരുമിച്ച് കൊണ്ടുപോവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബാലൻസ് ചെയ്ത് ഞാൻ കൊണ്ടുപോകും കാരണം വ്യക്തിജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഇടവേളകളിൽ അല്ലെങ്കിൽ ഇടവേളകൾ മനോഹരമാക്കാൻ വേണ്ടിയാണ് എപ്പോഴും ട്രക്കിങ്ങ് യൂസ് ചെയ്യുന്നത് അത് വ്യക്തിജീവിതത്തിൻ്റെ ആഴവും വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കും നമ്മളോട് അടുത്തുനിൽക്കുന്ന സുഹൃത്തക്കളോടൊപ്പം വീട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ തന്നെയാണെങ്കിൽപ്പോലും ട്രക്കിങ്ങിന് പോകുമ്പോൾ അത് പല തരത്തിലുള്ള അനുഭവം എനിക്ക് പ്രധാനം ചെയ്യുന്നുണ്ട് ഈ ട്രക്കിങ്ങിലൂടെ വ്യക്തിജീവിതത്തെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു റിലാക്സിങ്ങ് ടൈം അത് ട്രക്കിങ്ങിലൂടെ കിട്ടും എപ്പോഴും ഇങ്ങനെ അവധി ദിവസങ്ങൾ നോക്കി പോകുമ്പം അവധി ദിവസങ്ങൾ എപ്പോഴും ഫലപ്രദമാക്കാൻ ട്രക്കിങ്ങൾ സഹായിക്കും തൊഴിൽ സീവതത്തെ അത് ശരിക്കും പോസിറ്റീവ് ആയിട്ടാണ് ബാധിക്കുന്നത് കാരണം ഒരു തൊഴിൽ ജീവിതത്തിൽനിന്ന് ഒരു റിലാക്സിങ്ങ് ടൈം പോലെയാണ് ട്രക്കിങ്ങ് പലപ്പോഴും ഉപയോഗപ്പെടുന്നത് കൂട്ടുകാരോടൊപ്പം ട്രക്കിങ്ങിന് പോകുന്നതിലൂടെ നമുക്ക് കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോറ് ചെയ്യാൻ പറ്റും കുറേ ആൾക്കാരെ കാണാൻ സാധിക്കും പിന്നെ മനസ്സ് ഒന്നും റിലാക്സ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എപ്പോഴും ട്രക്കിങ്ങ് നല്ലപോലെ സഹായിക്കും ഒരു റിലാക്സിങ് ടൈമ് പോലെയാണ് ട്രക്കിങ്ങിനെ കാണുന്നത് കൊണ്ട് ഒരിക്കലും ഒരു തൊഴിൽ ജീവിതത്തിനും വ്യക്തിജീവിതത്തിനും ഒരു തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ ഒരിക്കലും ട്രക്കിങ്ങ് മാറിയിട്ടില്ല പിന്നെ കുടുംബക്കാരും സുഹൃത്തുകളും നിങ്ങളെ പിന്തുണയ്ക്കാറുണ്ട് ഉറപ്പായിട്ടും പിന്തുണയ്ക്കാറുണ്ട് കാരണം പല ട്രക്കിങ്ങും സുഹൃത്തുക്കളോടൊപ്പമോ കൂട്ട് കുടുംബത്തോടൊപ്പമോ ഒക്കെ ആയിരിക്കും അതല്ലാതെ തന്നെ പോകുന്നതും പരിചയക്കാരുടെ കൂടെ അല്ലാതെ പോകുന്നതിലും അവർ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഉറപ്പായിട്ടും അവർക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഇത് സേയ്ഫ് ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവർ മനസ്സിലാക്കിയാൽ അവർ ഉറപ്പായിട്ടും സപ്പോട്ട് ചെയ്യുകയും അങ്ങനെ എതിരെ നിൽക്കാതിരിക്കുകയും ചെയ്യും